ഹലോ

ആ കുറച്ച് തിരക്കിൽ ആയിപ്പോയി എന്താ ഇൻ്റ അവസ്ഥ എന്താ ആ ഒക്കെ നല്ല തന്നെ എന്തേനു വിളിച്ചത് എന്തേനു ആ ആ വാടകയ്ക്ക് ആണോ ആ ഒര് വീട് ഉണ്ട് ആ ഇങ്ങ് ഫാമിലിക്ക് സ്റ്റേ ചെയ്യേണ്ടിയിട്ടാണ് ബാച്ചിലേഴ്സിന് കൊടുക്കുന്നില്ലല്ലൊ ആ നോക്കാം പക്ഷെ ഇത് ഫാമിലിക്കാണ് കൂടുതൽ പോന്നത് ആ ആ ഓക്കെ ഓക്കെ ആ ഇൻ്റെ ഈ നമ്പറില് വിളിക്കാം